യു പി എസ് സി പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന വിദ്യാർത്ഥികള്ക്ക് പത്രങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെയും പല വാർത്തകളും ലഭിക്കാറുണ്ട് ടി വിയിലൂടെയുമെല്ലാം മാധ്യമങ്ങളിലൂടെയെല്ലാം അതിൻ്റെ അതിനൊരുക്കമായിട്ടുള്ള കാര്യങ്ങള് മാധ്യമങ്ങളിലൂടെയൊക്കെ കാണാറുണ്ട് പിന്നെ ജനറൽ നോളജ് പൊതുവിജ്ഞാനം ആയ പല അറിവുകളും അതിനകത്ത് ലഭിക്കാറുണ്ട് ടി വിയിലൂടെയുമൊക്കെ മത്സരത്തെപ്പോലെ പഴയകാലത്തേക്കാളും ഉപരിയായിട്ടുള്ള ഇതിന് യു പി എസ് സി പരീക്ഷയ്ക്ക് യോജിച്ചതായ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തുന്നതിനുവേണ്ടി ആവശ്യമായതെല്ലാം ലഭിക്കാറുണ്ട് ഇപ്പം പത്രമാധ്യമങ്ങളിലൂടെ പരീക്ഷയ്ക്ക് ആവശ്യമായ ഉപകരിക്കാവുന്ന പല ചോദ്യങ്ങളുമെല്ലാം ലഭിക്കാറുണ്ട് അങ്ങനെ ഒക്കെ അവർക്ക് ആവശ്യമായത് പലതും ലഭിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ ആവശ്യമായത് ലഭിക്കുന്ന അതിലൂടെ യു പി എസ് സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് അനുയോജ്യമാം വിധം പല മെസ്സേജുകളും ലഭിക്കാറുണ്ട്